അതായത് പണ്ട് മുതൽക്കേ ഒരു തെറ്റിദ്ധാരണ മിഥ്യയായ തെറ്റിദ്ധാരണ എന്നാണ് ഞാൻ പറയൂള്ളൂ കാരണം സ്ത്രീകൾ രാവിലെ എഴുന്നേൽക്ക വീട്ടിലെ പണി ചെയ്യാ മക്കളുടെ കാര്യം നോക്കുക പിന്നെ പുറത്ത് എന്തെങ്കിലും പണിക്ക് പോവുന്നുണ്ടെങ്കിൽ അവർ അവിടെയും പോയി പണി എടുക്കുക തിരിച്ച് വരുക വീട്ടിലെ പണികൾ ബാക്കി തീർക്കുക മക്കളെ നോക്കുക ഒര് സിസ്റ്റം പോലെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു രാവിലെ എഴുന്നേൽക്കുന്നു വല്ലതും അവർ ഉണ്ടാക്കി വച്ചിട്ടിണ്ടേൽ എടുത്ത് കഴിക്കുന്നു പണിക്ക് പോകുന്നു തിരിച്ച് വേണേ വരുന്നു തിരിച്ച് എങ്ങനെ വരുന്നൂന്നൊന്നും അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും അവർക്ക് ഒരു ഉത്തരവാദിത്തം അവർ പണി എടുക്കുന്നു അവരുട പണി വേതനത്തിൻ്റെ വേരിയേഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരുടെ ഒപ്പം ആ ഒപ്പം വേതനം വാങ്ങുന്ന സ്ത്രീകളും ഉണ്ട് പക്ഷേ ആ സിസ്റ്റത്തിൽ ഒര് മാറ്റോം വന്നിട്ടില്ല മാറ്റം വന്ന് തുടങ്ങി ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് വരെ മാറ്റം ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പം മാറ്റം വന്ന് തുടങ്ങീട്ടുണ്ട് ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ പുരുഷന്മാർ സ്ത്രീകൾടെ ഒപ്പം സഹായിക്കുന്നവരുണ്ട് രാവിലെ അവർ എഴുന്നേറ്റ് വരുമ്പം ഒരാൾ കോഫി ഉണ്ടാക്കുവാണെങ്കിൽ അടുത്ത ആൾ ഫുഡിനും അല്ലെങ്കിൽ കഷ്ണം ചോപ്പ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ഉള്ള ചെയ്യുന്ന ഒത്തിരി നല്ല ഭർത്താക്കന്മാരും ഉണ്ട് എല്ലാ ഭർത്താക്കന്മാരേയും ആക്ഷേപിക്കുന്നില്ല ചെയ്യുന്നോരും ഉണ്ട് ചെയ്യാത്തോരും ഉണ്ട് അപ്പം നമുക്ക് എന്താ പറയാ എല്ലാവരും ഈക്വൽ ആണ് സമത്വം വേണം സ്ത്രീകൾ എന്താ പറയാ വീട്ടിലെ പണി തീരാതെ അവർ വേറൊരു സ്ഥലത്ത് പണി എടുക്കുന്നുണ്ടേൽ അവിടത്ത പണിയും ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനല്ലേ അവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നണ്ടെങ്കിൽ പുരുഷന്മാർക്കും ഒന്ന് സഹായിച്ചാൽ അവർക്ക് ഒന്നും പറ്റും ഒന്നും ഇല്ല അപ്പം എന്താ ചെയ്യണ്ടേ അത് ആ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരണം ഇനി മുന്നോട്ടുള്ളയിൽ തലമുറയിലേക്ക് ഈ മാറ്റം വരുംന്ന് ഉറപ്പാണ് പക്ഷേ പഴയ ജനറേഷനുള്ളവർക്ക് മാറ്റം ഇതുവരെ അവർ മാറ്റത്തിലേക്ക് എത്തിയിട്ടില്ല അവർ